ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളും അവധി ദിനങ്ങളും ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ അവധി ദിനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് റിപ്പബ്ലിക്ക് ഡേ ഇന്ത്യ റിപ്പബ്ളിക് ഡേ ജാനുവരി ഇരുപത്തി ആറ് രണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം അതുപോലെ തന്നെ ഇന്ത്യ ഒട്ടാകെ ആഘോഷിക്കുന്നത് ഹോളി ആഘോഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധ്യാനം അർഹിക്കുന്ന ഒരു വലിയ ഒരു ഉത്സവമാണ് ഓണം അന്നേ ദിവസം പത്ത് ദിവസം ഏകദേശം ഒന്നാം ഓണം രണ്ടാം ഓണം മൂന്നാം ഓണം എന്നാൽ ഏകദേശം ഒരു പത്ത് ദിനങ്ങളെങ്കിലും ഒരൂ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ കേരളത്തിലെ ഹെൽത്ത് മെഡിക്കൽ മെഡിക്കലിന് പകരം മെഡിക്കൽ ഒഴിച്ച് ബാക്കി എല്ലാ മേഖലകളിലും മൂന്നു നാല് ദിവസങ്ങൾ ഏകദേശം അവധി വരുന്ന ദിനങ്ങളായിട്ടാണ് ആഘോഷിക്കുന്നത് ഇന്ത്യ ഒട്ടാകെ മലയാളികളുള്ള എല്ലാ ഇടങ്ങളിലും ഇന്ത്യ ഒട്ടാകെ ആ ഒട്ടാകെ ആ ദിനങ്ങൾ അവധി ദിനങ്ങൾ ആഘോഷിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ആദ്യം ഓർമിപ്പിച്ചതു പോലെ തന്നെ ഈ ക്രിസ്മസ് അത് ഇന്ത്യ ഒട്ടാകെ അവധിയുള്ള ഒരു ദിവസമാണ് ക്രിസ്മസ് അതുപോലെ തന്നെ റംസാൻ മുസ്ലിംസ് അവരോടുകൂടി ഇന്ത്യക്കാർ ആഘോഷിക്കുന്ന ഒരു ദിവസം അതുപോലെ തന്നെ ഹോളി അതുപോലെ റിലീജിയസ് അവധി ഹോളിയുടെ അവധി ദിവസങ്ങളായ പൂജവെപ്പ് അന്നേ ദിവസം രണ്ട് രണ്ട് ദിവസം കുട്ടികൾക്കെല്ലാം അന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കുവെല്ലാം അന്നേ ദിവസം ഇന്ത്യയിൽ അവധി ദിവസമായിട്ട് ആഘോഷിക്കുന്നു പിന്നെ വിഷു അങ്ങനെയുള്ള ദിവസങ്ങൾ അവധി ദിനങ്ങളായി ആഘോഷിക്കുന്നു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസങ്ങളിൽ എല്ലാ ബാങ്കുകളിലും എല്ലാ ഓഫീസ് യിലും അവധിയാണ് കാരണം ഇന്ത്യ ബ്രിട്ടീഷ് കോളനി വൽക്കരണത്തിനെതിരെ പോരാടുകയും ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്രം നേടുകയും ചെയ്ത ദിനമായിട്ട് ഇന്ത്യ ആഘോഷിക്കുന്നു അതുപോലെ തന്നെ റിപ്പബ്ളി റിപ്പബ്ലിക് ഡേ എല്ലാ ഇടങ്ങളിലും ഇന്ത്യയുടെ കൊടി രാവിലെ മുതൽ വൈകുന്നേരം മൂന്നര വരെ അത് ഉയർത്തുകയും താഴ്ത്തുകയും അത് അങ്ങനെ അത് വെളി വലിയ ഒരു എല്ലാ സംസ്ഥാനങ്ങലും ഒരുപോലെ ആഘോഷിക്കുന്ന വലിയ ഒരു അവധി ദിനമായി അത് കണക്കാക്കും